ഹലോ ഗോപകുമാർ സാറല്ലേ ആ ഞാൻ ഒരു ഞാൻ ഒരു പത്ത് ആൾ അടങ്ങിയിട്ടൊരു ടൂറിന് വരാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ നമ്പർ ഞങ്ങൾക്ക് ഒരാൾ തന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ഉള്ള ഈ പ്ലേസ് അറിയാൻ വേണ്ടിയിട്ട് എവിടെ നല്ലത് ടൂറിസ്റ്റ് പ്ലേസുണ്ടെന്ന് അറിയാൻ ആ ആ ആ ആ ഞങ്ങൾ പത്തു പേരാണ് ആ ആ എല്ലാം സെറ്റായിട്ടുണ്ട് താമസിക്കുന്ന കാര്യം എല്ലാം ഒന്നിച്ചുള്ള ഒരു

ബേക്കൽ ഫോർട്ട് ആ

ആ ആ ആ ആ ബീച്ച് ആ ടെമ്പിള് ആ ആ ആ മധുര ടെമ്പിൾ ആ ഓക്കെ ടെമ്പിളായിട്ടുള്ളതിൽ മധുര അവിടെ ടെമ്പിൾ മാത്രമേ ഉള്ളു

ആ ആ ആ ആ ആ ബീച്ച് ആ

ആ ബീച്ച് താഴെ ആ ആ ആ അത് തളങ്കര ബീച്ചാണല്ലേ

ഓക്കെ അത് അതിനു വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു തരുമോ ചെയ്ത് ഓ ഓക്കെ അപ്പം ആ പിന്നെ പിന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്ത് നമ്മൾ സംസാരിച്ചിട്ട് ടെമ്പിൾ എല്ലാം പോകണം എന്നുണ്ടെല്ലാം കാണണം അപ്പോൾ അത് കോൺടാക്ട് ഓ അത് ഞാൻ അറിയിക്കാം ഓക്കെ അഞ്ച് മിനിറ്റ്